കോഴി വളർത്തലെന്ന് പറയുമ്പോഴത്തേക്കും അത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകണം അല്ലെങ്കിൽ അതൊരുപാട് കോഴിപ്പനി ഇപ്പം പക്ഷിപ്പനികളൊക്കെ ഉണ്ടല്ലോ അപ്പം അത് ഗവണ്മെന്റ് നിയന്ത്രണങ്ങൾ ഏര്പ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഹോട്ടലുകളിലൊക്കെ ഒരുപാട് പനി പിടിച്ച പക്ഷികളെയെക്കെ ഇട്ട് ഒരു ഇതാക്കിയിട്ട് ജനങ്ങള്ക്ക് കഴിക്കുന്ന ജനങ്ങള്ക്കും ബുദ്ധിമുട്ടാണ് അത് നിയന്ത്രിച്ചു നിയന്ത്രണ ഏര്പ്പെടുത്തിയിട്ടുണ്ട് ഗവണ്മെന്റ് പക്ഷെ അതാരും അംഗീകരിക്കുന്നില്ല കുറേപ്പേർ അത് അംഗീകരിക്കുന്നുണ്ട് ഒന്ന് കുറേ സ്ഥലത്തൊക്കെ പക്ഷിപ്പനി ഉള്ളത് കാരണം വില്പ്പന നിരോധിച്ചിട്ടുണ്ട് നമ്മൾ അത് നല്ല രീതിയിൽ കെയറ് ചെയ്യണം ചില കോഴികളൊക്കെ നമ്മൾ ഈ ഇറക്കുമതി ചെയ്യുമ്പോഴത്തേനും പിന്നെ അത് ചിലപ്പം രോഗം ബാധിച്ച കോഴികളായിരിക്കും നമ്മൾ കോഴി വളര്ത്തുന്നവരാണെങ്കിലും നല്ല രീതിയിൽ തന്നെ കോഴിയെ നമ്മൾ കൂട്ടിലിട്ട് ആണെങ്കിലും അതിന്റെ ആവശ്യം അല്ലാത്ത വസ്തുക്കൾ അതിനാണ് കോഴി ഇതിനകത്ത് എറിഞ്ഞ് കഴിയുമ്പം അവിടെ വൃത്തിഹീനമാകാറുണ്ട് വല്ല കോഴിക്കൂട്ടിലൊക്കെ ആണേലുള്ള സാധനങ്ങൾ നമ്മൾ ആഴ്ച്ചയിലെങ്കിലും അത് ക്ലീന് ചെയ്തു വേസ്റ്റ് മാറ്റി മാണ്ടാ ആവശ്യമുണ്ട് വീണ്ടും പുതിയ മണ്ണ് വാരിയിടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അറക്കപ്പൊടികൾ ശേഖരിച്ചു അത് ക്ലീന് ചെയ്യേണ്ടത് ആവമാണ് കോഴിക്കൂടുകൾ പിന്നെ കോഴികള്ക്ക് ആണെങ്കിലും നല്ല രീതിയിൽ അതിനെ കൊഴ് സംരക്ഷിക്കേണ്ടത് അത്യാവശ്യവാണ് അതു പോലെ തന്നെ ന്നെ ഗവണ്മെന്റ് നല്ല രീതിയിൽ പക്ഷിപ്പനികള്ക്ക് നിയന്ത്രണം ഏര്പ്പെടുത്താറുണ്ട് വല്ല ആ വല്ല മൃഗ സംരക്ഷണത്തിന്റെ ആണെങ്കിലും പിന്നെ നമ്മൾ പട്ടികളെയും ഒക്കെ വള പൂച്ചേനെ ഒക്കെ വളർത്തുമ്പം അത് ജനങ്ങള്ക്ക് ദോഷകരമായ ആകാത്ത രീതിയിൽ വേണം നമ്മൾ ചെയ്യേണ്ടത് അവരെ ഇഞ്ചെക്ഷൻ എടുക്കണം അങ്ങനെ ഒക്കെ ചെയ്യേണ്ടതാണ് അത്പോലെ തന്നെ ലൈസന്സ് കോഴിനെ ആണെങ്കിലും നമ്മൾ കുറേ കോഴി ഫാമൊക്കെ നടത്തുമ്പം അത് ലൈസന്സിന് എടുക്കേണ്ടത് അത്യാവശ്യാണ് അതു പോലെ തന്നെ മൃഗങ്ങളെ തന്നെ ആണെങ്കിലും പട്ടികളെയൊക്കെ നമ്മൾ വളർത്തുമ്പം അതിനും സമയത്ത് ഇഞ്ചെക്ഷന് ചെയ്യണം മറ്റും ആരെയും കടിക്കാതെ ഏല്ക്കേണ്ടത് ആവശ്യവാണ് പട്ടികളൊക്കെ ആവുമ്പം നമ്മൾ കൂടിനകത്തിട്ട് തന്നെ വളർത്തണം മറ്റുള്ളവര്ക്ക് ഉപദ്രവം ആകാത്ത രീതിയിൽ വേണം നമ്മൾ അത് മൃഗങ്ങളെ വളര്ത്തിക്കൊണ്ട് പോവേണ്ടത്